ഇന്ത്യൻ സിനിമയുടെ ഈ സംഗീതത്തേയും കുറിച്ച് നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ എല്ലാത്തരം സിനിമകളും ആസ്വദിക്കാറുണ്ട് അവസരത്തിനൊത്ത് ഏതെല്ലാം കാണാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ സിനിമകളും ആസ്വദിക്കാറുണ്ട് കഥാപാത്രങ്ങളുടെ അനുസരിച്ചാണ് ഞാൻ എനിക്ക് നടനും നടിയും എല്ലാവരേയും ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആളിനെ ഇഷ്ടമെന്ന് ഇല്ല അവർ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളിൽ അവരെത്ര മാത്രം പെർഫോം ചെയ്തുവെന്നതനുസരിച്ച് ഞാനവരെ വിലയിരുത്താറും ഇഷ്ടപ്പെടാറുമുണ്ട് സിനിമാഗാനങ്ങൾ കൂടുതലും മെലഡി ഗാനങ്ങളാണെനിക്കിഷ്ടം ലിറിക്ക്സുകൾ ഏത് കേട്ടാലും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിച്ച് കേൾക്കാറുമുണ്ട് എല്ലാ മിക്ക നമ്മുടെ മിക്ക മലയാള ഗായകരേയും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ജയചന്ദ്രൻ്റെ ശബ്ദം വേണുഗോപാലിൻ്റെ ശബ്ദമൊക്കെ കൂടുതലിഷ്ടമാണ്